ജന്മദിനങ്ങൾ വിവാഹം ഏതെങ്കിലുമൊക്കെ ഒരു നേട്ടം ഞാൻ കൂട്ടുകാരും വീട്ടുകാരുമായി തന്നെയാണ് മാക്സിമം ആഘോഷിക്കുന്നത് ഒരിക്കലും ഒരു ആഘോഷ പൂരിതമായ ലൈഫ് അല്ലെങ്കിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ട് പോകുന്ന ഒരാളല്ല എൻ്റെ പരിമിതികളിൽ നിന്നും എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും മാക്സിമം സന്തോഷവും അഭിമാനവും നൽകുക എന്നുള്ളൊരു ഉത്തമ ബോധത്തോടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് താഴെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ജന്മദിനങ്ങൾ വിവാഹം വേറെന്തെങ്കിലും നേട്ടങ്ങൾ എന്നിവ എന്നീ ഓർമ്മകളിലേക്ക് പോകുമ്പോഴേ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് എൻ്റെ ജന്മദിനമാണ് ഈ കഴിഞ്ഞ് പോയ ജന്മദിനമാണ് ഒരിക്കലും എല്ലാ കൊല്ലവും സാധാരണ ദിവസം പോലെ കഴിഞ്ഞ് പോകാറുള്ള ദിവസമൊന്നുമല്ല എൻ്റെ ജന്മദിനം എൻ്റെ അച്ഛനും എൻ്റെമ്മയും എൻ്റെ സഹോദരിയും ചേർന്ന് മാക്സിമം അവരെ കൊണ്ടാകുന്ന വിധം സന്തോഷപൂരിതമാക്കി എന്നെ മാറ്റാൻ അവർ മാക്സിമം ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് കൊണ്ട് തന്നെ പക്ഷേ ഇതിൽ നിന്ന് കഴിഞ്ഞ മറ്റ് ബർത്ത്ഡേകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ജന്മദിനങ്ങളിൽ നിന്ന് കഴിഞ്ഞ കൊല്ലത്തെ അല്ലാതെ എൻ്റെ ഇരുപത്തി മൂന്നാം ജന്മദിനം എന്തുകൊണ്ടാണ് ഇത്ര സ്പെഷ്യൽ ആകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാർ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഞാൻ പോലുമറിയാതെ എനിക്കൊരു എൻ്റെ ഇഷ്ട്ടത്തിലുള്ളൊരു വസ്ത്രം എനിക്കൊരു ഷൂസ് എൻ്റെ പേരെഴുതിയ എന്നെ കളിയാക്കുന്ന രീതിയിലാണെങ്കിൽ പോലും എൻ്റെ പേരെഴുതിയ ഒരു കേക്ക് എനിക്ക് മേടിച്ച് തന്നു കാര്യം അവർക്ക് സാധാരാണോരു ദിവസം പോലെ വാട്സാപ്പിലൊരു സ്റ്റാറ്റസ്സക്കെ ഇട്ട് എന്നെ ഒന്ന് വിഷ് ചെയ്താൽ കടന്ന് പോകായിരുന്നു പക്ഷേ അവരെത്രയോ ദൂരം താണ്ടി അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എൻ്റെ നേറ്റീവ് പ്ലേസിലെത്തി എന്നെ വിഷ് ചെയ്തു കേക്കെല്ലാം മുറിച്ച് സന്തോഷമായിട്ട് അവർ പിരിഞ്ഞു അപ്പോൾ നമുക്കും നമുക്ക് വേണ്ടി ചിന്തിക്കാനും അല്ലെങ്കിൽ ഞങ്ങടെ ജന്മദിനം ആലോചിക്കാനും ഞങ്ങൾക്കും ഒരാളുണ്ട് എന്നൊരു തോന്നൽ വരുന്നിടത്താണ് എൻ്റെ ജീവിതം ധന്യമാകുന്നു എന്നുള്ളൊരു മോമെൻറ്റിലേക്ക് ഞാൻ എത്തിയത് ഈ ഒരനുഭവം ഈ ഒരവസരത്തിൽ നിങ്ങളെടുത്ത് പങ്കെടുന്നതിലൂടെ എൻ്റെ ഓർമ്മ പുതുക്കലായി ആ ഒരവസരത്തിന് നന്ദി അതുപോലെ തന്നെ എൻ്റെ സന്തോഷം നൽകുന്ന നിമിഷങ്ങളിലെല്ലാം ഞാനിത് ചിന്തിക്കും എനിക്ക് ദുഃഖം വരുന്ന നിമിഷങ്ങളിലെല്ലാം ഞാൻ സന്തോഷിക്കും ഇത് ചിന്തിച്ച് കൊണ്ട് സന്തോഷിച്ച് കൊണ്ടിരിക്കും കാര്യം ഈ അനുഭവങ്ങൾ മാത്രമാണ് എന്നെ ലൈവാക്കി നിർത്തുന്നതും എന്നെ സന്തോഷമാക്കി കൊണ്ട് പോകുന്നതും സന്തോഷമാക്കി ഇരിക്കാൻ ആർക്കാണ് ആഗ്രഹം ഇല്ലാത്തത്